ഞങ്ങൾ സാധാരണയായിട്ട് പോവാറുള്ളത് മൂന്നാർ ആതിരപ്പിള്ളി കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് വെക്കേഷൻ സമയത്തൊക്കെ പോവാറുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് താൽപര്യമുള്ളത് പോവാൻ കൊടൈക്കനാലാണ് അവിടെയുള്ള ഓരോ സ്ഥലങ്ങൾ ഒക്കെ കാണാൻ പ്രത്യേക ഭംഗിയാണ് പിന്നെ അവിടെ ഒരു ഗുണാ കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ കുറേ പേടി സ്വപ്നങ്ങളും എല്ലാമൊക്കെയായിട്ട് മനുഷ്യന്മാർക്കൊപ്പം അവിടെയൊക്കെ പോവാനൊക്കെയായിട്ട് ഒരു പേടിയായിരിക്കും പിന്നെ എന്താണ് പറയുക തണുപ്പാണ് അവിടെ അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബമായിട്ടാണ് പോവാറ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരായിട്ടുള്ള സന്തോഷം പങ്കിടാനും ഫോട്ടോസ് എടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഒക്കെ ഒരു പ്രത്യേക രസമാണ് അവിടെ പിന്നെ എന്താണ് പറയുക അവിടെയുള്ള തണുപ്പ് അപ്പം നമ്മൾ അതിനനുസരിച്ച് സന്തോഷിക്കുകയും പിന്നെ അവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ ഒരുവിധം നല്ല ഭക്ഷണങ്ങളൊക്കെയാണ് നമ്മൾ കഴിക്കാറുള്ളത് പിന്നെ അവിടെത്തന്നെ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട് പിന്നെ മലയുടെ മുകളിലേക്കൊക്കെ കയറി പോന്ന് കഴിയുമ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ പുഴ അങ്ങനത്തെ ഒക്കെയുള്ളൊരു ഒരു സീനറി ഒക്കെ നമുക്കവിടെ കാണാൻ പറ്റും അപ്പം നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് അത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് തന്നെ ഒരു സന്തോഷമൊക്കെ കിട്ടാറുണ്ട് പിന്നെ അവിടെ ചെന്നുകഴിയുമ്പോൾ പിന്നെ ഓരോ നമ്മൾ എല്ലാവരുമായിട്ട് പൊകുമ്പോൾ ഉള്ള വണ്ടിയിൽ ഉള്ള ഓരോ കാര്യങ്ങളും എല്ലാം നമുക്കതൊക്കെ ആസ്വദിക്കാനും ഓർമ്മിക്കാനൊക്കെ ആയിട്ട് കുറേയുണ്ടാവും തമിഴ്നാട് ഏരിയ ആയതുകൊണ്ട് മിക്കവർക്കും അങ്ങോട്ട് എത്തുമ്പോൾ ഒരു എന്താണ് പറയുക നമ്മൾ കാണാത്ത ആൾക്കാരൊക്കെയായിരിക്കും അവിടെ കാണുക നമുക്ക് മലയാളീസിനെ തന്നെ അവിടെ കാണാനില്ല ഓരോ ഇംഗ്ലീഷുകാർ തമിഴ്നാട്ടിലുള്ള ആൾക്കാർ മലയാളീസ് അങ്ങനെ ഓ മികച്ച കുറേ കുറേ ആളുകളെ ആയിരിക്കും നമ്മൾ അവിടെ വെച്ച് കാണുക